ഹലോ ആആ കേൾക്കാം പറഞ്ഞോ ടീച്ചറെ സുഖമായിട്ടിരിക്കുന്നു ക്ലാസ്സിലാണ് ഒക്കെ കുഴപ്പം ഇല്ല എന്ന് തോന്നുന്നു പുതിയ സ്കൂളും കുട്ടികൾ ഒക്കെ പിള്ളേരെക്കെ അത്യാവശ്യം നന്നായിട്ടാ പോകുന്നത് അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികള്ക്ക് പക്ഷെ അതൊക്കെ

കുട്ടികളൊക്കെ ഇപ്പം ഒത്തിരി മാറിപ്പോയി പണ്ടത്തെക്കാലത്ത് നിന്നും അതൊക്കെ സോള്വായി പോകുന്നു എന്താ പ്രിന്സിപ്പളിന്റെ ഒക്കെ അടുത്ത് പോയി ഭയങ്കരം പ്രശ്നമായി

സസ്പെന്ഷനൊന്നും ഉണ്ടായില്ല ഒന്ന് വാണ് ചെയ്ത് വിടുവാണ് ചെയ്തത് ആ സത്യം വേറെ നല്ല വിശേഷം ക്ലാസ്റൂമ് ഒക്കെ അടിപൊളിയാണ് ടീച്ചേഴ്സ് അടിപൊളിയാണ് നല്ല രസമുണ്ട് പക്ഷേ കുട്ടികൾ ഒക്കെ സെറ്റ് ആവുന്നില്ല സ്വഭാവവും കാര്യങ്ങളും പിന്നെ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരാണല്ലോ നമ്മുടെ ഒപ്പത്തിന് വരില്ല അതാണ് കുഴപ്പം ഒന്നും ഇല്ല നല്ല സ്ട്രിക്റ്റ് ആണ് അത്യാവശ്യം നല്ലപോലെ ആഹ് ആഹ് സത്യം പലരും പലതും പറയുന്നു ചെയ്യുന്നത് വേറെ ആ ഒരു ഇങ്ങനെയാണ് ഇപ്പോഴും ഇവിടെയും പോവുന്നത് ഇവിടെ വേക്കൻസ് വേക്കന്സി ഉള്ളതായിട്ട് അറിയില്ല ചോദിച്ചിട്ട് പറയാം

ആഹ് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എങ്ങനെ വേക്കന്സി ഉണ്ടോ ഇല്ലയോ എന്ന്

നല്ല വിശേഷം ഒക്കെ ആഹ് മറക്കില്ല ആഹ് പറഞ്ഞേക്കാം ആഹ് ഇനി ചോദിച്ചേക്കാം ആഹ് അന്വേഷിക്കാം ആഹ് ഓക്കെ